ആ ആ എന്താണ് വേണ്ടത്

ആ ഓഫർ കുറച്ചൊക്കെ വില കുറച്ച് കൊടുക്കും ആ കുറച്ചൊക്കെ വില കുറച്ച് കൊടുക്കും കുറച്ച് തരാം ഒന്നിച്ച് വാങ്ങുവല്ലേ അപ്പം നെയ്യപ്പം ഉണ്ട് ഉണ്ണിയപ്പം ഉണ്ട് ഉണ്ടയുണ്ട് പൂവാട ഉണ്ട് കൽത്തപ്പം ഉണ്ട് പിന്നെ കൊക്കവട സമോസ ഒക്കെ ഉണ്ട് കൽത്തപ്പത്തിനൊരു പീസിന് ഇവിടെ ഒരു പത്ത് രൂപ വരും ആ അത് പെട്ടെന്ന് എടുക്കാം ഇപ്പോൾ ഒരു അമ്പതെണ്ണം അമ്പ പത്തെണ്ണത്തിന് നൂറ് റുപ്യ ആ നൂറാവും

ചായ വെള്ളച്ചായ ഉണ്ട് പാൽ പാർന്ന പാൽച്ചായ ഉണ്ട് കാപ്പി ഉണ്ട്

കാപ്പിക്ക് ഇവിടെ ഒരു ഏഴ് പത്ത് റുപ്യ പത്ത് റുപ്യ ഒക്കെ വരും ഉം പിന്നെ വെള്ളച്ചായയ്ക്ക് പന്ത്രണ്ട് ഉം ആ കൊണ്ടുവന്ന് തരാം കൊണ്ടുവന്ന് തരാം ആ കട്ലറ്റ് ഉണ്ട് കട്ലറ്റിന് പന്ത്രണ്ട് റുപ്യ

ആ എന്നാൽ ശരി എന്നാൽ ഞാൻ പിന്നെ വിളിക്കാം